കൃഷിക്കായിട്ടുപയോഗിക്കുന്ന മെഷീനുകൾ കൃഷി കൃഷി തുടങ്ങുമ്പോൾ കണ്ടം ഉഴുതുമറിക്കാൻ ട്രാക്റ്ററുണ്ട് ടില്ലറുണ്ട് അതിന് ശേഷം ഞാറ് നടാൻ വേണ്ടി ജപ്പാൻ നാട്ടി എന്നൊര് മെഷീൻ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കൊയ്ത്തിനാവശ്യമായ കൊയ്ത്ത് മെഷീൻ ഉണ്ട് അതിന് ശേഷം പിന്നേ കവുങ്ങ് തെങ്ങ് എങ്ങനത്തെ അങ്ങനത്തേ ഇനം വൃക്ഷങ്ങൾ നടാൻ വേണ്ടി നമ്മുടെ ജെ സി ബി ഹിറ്റാച്ചി മുതലായ മെഷീനുപയോഗിച്ച് കുഴികൾ എടുക്കാറുണ്ട് അതിന് ശേഷം ഇത് കായ് തെങ്ങ് പറിയ്ക്കാൻ തേങ്ങ പറിയ്ക്കാനും അടയ്ക്ക പറിയ്ക്കാനും കയറാൻ പറ്റുന്ന മെഷീൻ ഉണ്ട് അങ്ങനെ നിരവധി മെഷീനുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് ഇതുപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും